കണ്ണൂർ ജില്ലയിലെ പറയുമ്പോൾ അറിയാലോ തെയ്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഈ തെയ്യം കെട്ടുന്ന ആൾക്കാരുടെ ആ ഒരു തൊഴിലായിരിക്കും അങ്ങനെ കൈമാറി കൈമാറി ഒക്കെ വരുന്നത് ഇപ്പോൾ തെയ്യം കെട്ടുന്നോരാൾക്ക് കുറച്ച് പ്രായം ഒക്കെ ആകുവാണെങ്കിൽ അയാളുടെ മകൻ അല്ലെങ്കിൽ കുടുംബത്തിലെ വേറെ ആരെങ്കിലുമായിരിക്കും അടുത്ത തെയ്യം കെട്ടുന്നുണ്ടാവുക അപ്പം അതായിരിക്കും ഇങ്ങനെ കൈമാറി കൈമാറി ഒക്കെ വരുന്നൊരു പിന്തുടർന്നൊക്കെ വരുന്നൊരു കല ഒരു കലയാണ് അത് ഒരു തൊഴിലാണ് അപ്പം തെയ്യം കെട്ടുന്നതിപ്പോൾ ദൈവത്തിൻ്റെ തെയ്യം കെട്ടുന്നത് അപ്പോൾ അതിനവരുടേതായ ശൈലിയും അതിനു അതിൻ്റെതായ പ പഠിപ്പൊക്കെ ഉണ്ട് ഓരോ ശ്ലോകങ്ങൾ പറയലും മന്ത്രങ്ങളും പിന്നെ അതുപോലെ വ്രതം എടുത്തിട്ട് വ്രതോക്കെയെടുത്തിട്ട് വേണമല്ലോ തെയ്യം കെട്ടാൻ അപ്പോൾ അതൊക്കെയാണ് പിന്തുടർന്ന് വരുന്നത് പിന്നെ അതുപോലെ ഈ ഈ വേറെ ഒരു ജോലി പറയുവാണെങ്കിൽ ഈ പാട്ടം ഈ കണ്ടത്തിൽ പാട്ടമെടുക്കുക അങ്ങനെയൊക്കെയില്ലേ എവിടെ ഒരുപാട് തെങ്ങും അടക്ക കവുങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ സമ്പത്ത് ആയിട്ടും മാറി വരൂമല്ലോ ഇപ്പോൾ എൻ്റെ അച്ഛമ്മേടേത് എൻ്റെ അച്ഛന് അടുത്ത് എടുക്കുവാന്നുള്ള രീതിയിൽ അപ്പം അച്ഛമ്മ ഇപ്പോൾ അവിടെന്നുള്ള തേങ്ങയാണേലും അടക്കയാണെലും അച്ഛമ്മ എടുക്കുന്ന സമയത്ത് ഇനി അത് കൈമാറി നേരെ അച്ഛന് വരുമ്പോൾ അച്ഛൻ അവിടുത്തെ പണിയെടുപ്പിക്കലും അങ്ങനെ അങ്ങനെ ഇവിടെയുണ്ട് സ്ഥലങ്ങൾ പാട്ടമെടുക്കുന്നതും അതൊക്കെയാണ് ഇവിടെ കണ്ണൂർ ജില്ലയിൽ കൂടുതലായിട്ടും ഇങ്ങനെ കൈമാറി വരുന്ന ഒരു തൊഴിൽ പിന്നെ അതുപോലെ ഓരോരോ ഷോപ്പുകൾ പണ്ട് പണ്ടേ ഉള്ള കടമുറികൾ അതൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആധാരം എഴുത്ത് അതൊക്കെ വേറെ ആൾക്ക് കൈമാറി വരൂമല്ലോ മക്കൾക്കോ പിന്തുടർന്ന് വേറെ ഒരാൾ ഏറ്റെടുത്തിട്ട് അവിടെ പണി എടുക്കും അങ്ങനെയൊക്കെ ഉള്ളത്